ഇതിൻ്റെ ഉത്തരം പറയുകയാണെങ്കിൽ ഞാനൊരു എഴുത്തുകാരിയൊന്നും അല്ല ഒരു എഴുതുന്നയാളോ അല്ലേ അങ്ങനെയുള്ള ഒരു എഴുത്തുകാരിയോ ഒന്നും അല്ല പക്ഷേ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാൻ പറ്റുന്നില്ല നിങ്ങളെ നിങ്ങളുടെ എഴുത്ത് ഒരു നിങ്ങളുടെ എഴുത്തിന് മറ്റേ എഴുത്തുകാരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഞാനൊരു എഴുത്തുകാരിയല്ല ഞാനൊരു വീട്ടമ്മയാണ് ഞാൻ ജോലി ചെയ്യുന്ന ആളാണ് പിന്നെ നമ്മൾ നമുക്ക് എഴുതുക എന്ന് പറയുമ്പം എല്ലാവർക്കും എഴുതാൻ പറ്റത്തില്ല ഇപ്പം എല്ലാവരും എഴുതണം എന്ന് പറഞ്ഞാൽ എഴുത്തുകാരകണമെന്ന് പറഞ്ഞാൽ അതൊരു കലയാണ് നമ്മളൊരു പാട്ട് പാടുന്ന പോലൊരു കലയാണ് സത്യത്തിൽ അതൊരു എല്ലാവർക്കും കിട്ടുന്നൊരു കഴിവൊന്നും അല്ല ഒരു എഴുതുക എന്ന് പറയുന്ന എഴുത്തെന്ന് പറയുമ്പോൾ അത് ജന്മനാ കിട്ടുന്ന ഒരു ഒരു ഒരു ജന്മവാസനയാണ് അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരെയും കൊണ്ടൊന്നും എഴുതാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പക്ഷെ നമുക്ക് എല്ലാവാരെയും കൊണ്ടും ജോലി ചെയ്യാൻ പറ്റും അല്ല നമുക്ക് നമ്മുടേതായ കോമണായിട്ടുള്ള കാര്യങ്ങളുണ്ട് എഴുത്തുകാരിൽനിന്നെന്ന് പറയുന്ന കഴിയുമ്പം പിന്നെ രണ്ടാമത് നിങ്ങളെ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എഴുത്തുകാർക്ക് ഇപ്പം എന്ത് വേണമെങ്കിലും എഴുതണം എന്നുള്ള ഒരു കാര്യങ്ങളൊന്നും ഇല്ല എഴുത്തുകാർക്ക് അവരുടേതായിട്ടുള്ള അവരുടെ സ്വാതന്ത്ര്യത്തിനാണ് ചിലർ എഴുതുന്നത് ചിലർ നല്ല കാര്യങ്ങൾ എഴുതുന്നത് ചിലർ എന്തൊക്കെയോ മനസ്സിൽ വെച്ചുകൊണ്ട് സമൂഹത്തെ കുറ്റപ്പെടുത്തിയുള്ള എഴുത്തുണ്ട് അപ്പം നല്ല എഴുത്തുകാർ നമ്മുടെ സമൂഹത്തിൽ വരണം നമ്മുടെ എഴുത്തുകാരെന്ന് പറയുമ്പം നല്ല രീതിയിൽ സമൂഹത്തെ കണ്ടിട്ട് ആ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് സമൂഹവുമായിട്ട് ഇഴകിച്ചേർന്ന് എഴുത്തുകാരായിരിക്കണം അല്ലാതെ പിന്നെ ഒരു വ്യക്തിയുടെ ഒരു ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഉള്ള ഒരു എഴുത്തുകാരെ നമ്മുടെ സമൂഹത്തിനാവശ്യം ഉള്ളത് അല്ലാതിപ്പം എ സി മുറിക്കകത്തിരുന്നുകൊണ്ട് മറ്റുള്ളവരുടെ കഥകൾ എഴുതുന്ന ആ ഒരു എഴുത്തുകാരെയൊന്നും അല്ലാണ്ട് പച്ചയായിട്ടുള്ള എഴുത്തുകാരെയാണ് നമ്മുടെ സമൂഹത്തിനാവശ്യം അല്ലാത്ത എഴുത്തുകാരെയുംകൊണ്ട് എന്താണ് അതുകൊണ്ട് എന്താണ് കഥ എന്താണ് ഒന്നും ഇല്ല അത് ഏത് സമൂഹം ഏതാണെന്ന് പറഞ്ഞാൽ എഴുത്തിൻ്റെ മാത്രം അല്ല ഇപ്പം നമ്മൾ മറ്റുള്ളവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് നമുക്ക് മറ്റുള്ളവരുടെ ജീവിതാനുഭവമാണ് നമ്മളെ എഴുതാ എഴുതി കാണിക്കേണ്ടത് ഇപ്പോഴത്തെ ഒരു സമൂഹം എന്ന് പറയുമ്പോൾ ഒരു എഴുത്തുകാരെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നില്ല എഴുത്തുകാർ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ എഴുത്തൊന്ന് പ്രവർത്തിയൊന്ന് എന്ന് പറയുന്ന രീതിയിലേ ഉള്ളൂ എല്ലാം അതു തന്നെയാണ് എഴുത്തും നമ്മൾ എഴുതുന്ന ഒന്ന് പറയുന്ന ഒന്ന് അതിൽ പറയുന്നത് ഒന്ന് പ്രവർത്തിക്കുന്ന ഒന്ന് ചെയ്യുന്നത് ഒന്ന് എല്ലാം ഇതൊക്കെ തന്നെയാണ് അപ്പം അങ്ങനെ എഴുത്തുകാർ നല്ല എഴുത്തുകാർ വേണം നമ്മുടെ സമൂഹത്തിൽ നല്ല എഴുത്തുകാർ വേണം അവരെ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരായിരിക്കണം പാവങ്ങളെ മായിട്ട് ബന്ധപ്പെടുന്നവരായിരിക്കണം അല്ലാതെ എല്ലാ രീതിയിലുമുള്ള അത് അങ്ങനെയുള്ള എഴുത്തുകാരെയാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യം ഞാനൊരു എഴുത്തുകാരിയല്ല ഞാൻ എനിക്ക് എഴുതാൻ വലിയ വശം ഇല്ല പിന്നെ ഇപ്പം ഇത് ഇപ്പം നമ്മൾ പറയും നമ്മുടെ അഭിപ്രായങ്ങൾ പറയുക എഴുതാൻ ചിലപ്പം നമുക്കത് പറ്റത്തില്ല നമ്മൾ അഭിപ്രായങ്ങൾ നമ്മൾ പറയണം